ഞങ്ങള് ബൈക്കിനെ നന്നായി പരിപാലിക്കുകയും അതിൻ്റെതായ ബൈക്കിൽ പെട്രോളടിക്കുകയും അതിന്റെ എഞ്ചിനും കാര്യങ്ങളുമെല്ലാം ശ്രദ്ധിക്കുകയും അതിന്റെ കാറ്റെല്ലാം പരിശോധിച്ചിട്ടാണ് ഒരു യാത്രയ്ക്ക് ഞങ്ങൾ ബൈക്കുമായിട്ട് പുറപ്പെടുന്നത് അപ്പോള് ദീർഘയാത്ര ചെയ്യുകയാണെങ്കില് നമ്മള് സമയങ്ങളിൽ മടുപ്പിക്കാറുണ്ട് കാരണം ദീര്ഘയാത്ര ചെയ്യുമ്പോഴത്തേക്കും ക്ഷീണവും അതിന്റേതായ നടുവേദനയും അതിന്റേതായ ബുദ്ധിമുട്ടുകളും ഉണ്ടാകാറുണ്ട് അപ്പോള് ഇടയ്ക്ക് നിർത്തുകയും വെള്ളം കുടിക്കുകയും കുറേനേരം നന്നായിട്ട് വിശ്രമിച്ചതിന് ശേഷം മാത്രമാണ് ബൈക്ക് യാത്രകള് ചെയ്യാറുള്ളത് കൂടുതലായിട്ടും ദീർഘയാത്രകളില് അതിന്റേതായ ജാഗ്രതയും പ്രചോദനവും നിലനിർത്തി ആരോഗ്യവും അതുപോലെ എല്ലാം നിലനിർത്തിയാണ് ബൈക്ക് യാത്രകള് ചെയ്യാറുള്ളത്